ഹലോ ടോപ്പ് ഫോം റെസ്റ്റോറൻറ്റ് അല്ലേ ആ ആ ഞങ്ങൾ അവിടേക്ക് എന്താ പറയുക ഒരു കൊ കൊറിയറ് പറയാൻ ആയിരുന്നു പാർസൽ ആയിട്ട് അപ്പം എന്തൊക്കെ ഡിഷ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരുന്നു

ആ ഇപ്പം ചിക്കൻ്റെ എന്തൊക്കെ ഇപ്പം അൽഫാമും ആ എന്താ പറയുക

ഓക്കേ ഇപ്പം ഡെസേർട്ട് ഐറ്റംസ് ആയിട്ട് മിൽക്ക് ഷേക്കോ അങ്ങനത്തെ എന്തേലുമൊക്കെ ഉണ്ടോ ആ ഓക്കേ അപ്പം എത്ര കിലോമീറ്റർ വരെ ആണ് ഇതിൻ്റ എന്താ പറയുക ഡെലിവറി വരുന്നത് എത്ര കിലോമീറ്റർ വരെ ആണ് ഡ് ഡെലിവറി വരുന്നതെന്ന് ആ ഓക്കേ ഒരു പത്ത് പേർക്കുള്ള ഫുഡ്ഡാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വേണം മന്തി മന്തി എടുത്താൽ മതി ആ മന്തി അൽഫാം മന്തി എന്താ പറയുക അൽഫാമ് ഒന്ന് പെരി പെരിയും ഒന്ന് ചി അല്ല നോർമലും പിന്നെ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി അങ്ങനെ മൂന്ന് അൽഫാമും ഫുൾ റൈസും വേണം ആ ബാക്കി ഇപ്പം ആ ആ അതെ പിന്നെ ഫ്രഷ് ജ്യൂസ് ഉള്ളത് അതും വേണം അതൊക്കെ സെപ്പറേറ്റ് ഇതായിരിക്കുമല്ലെ കണ്ടെയ്നറിൽ ആയിരിക്കില്ലേ ഏ വെജ് ഒന്നും വേണ്ട അപ്പം റൈസ് ഒരു ആ ആ ഒരു എന്താ പറയുക റൈസ് കുറച്ച് കൂടുതൽ എടുക്കാം ആ ഓക്കേ ഓക്കേ ആ ബർഗർ സാൻഡ്വിച്ച് അങ്ങനെ എന്തേങ്കിലുമുണ്ടോ ആ അപ്പം ഡബിൾ ചീസ് ആയിട്ടുള്ള ബർഗറ് വേണം ഒരു നാല് എണ്ണം ആ പിന്നെ ബാക്കി മെനു കാർഡ് ഒന്ന് വാട്ട്സ്ആപ് ചെയ്ത് തരാൻ പറ്റുമോ ആ അതെ അതെ ആ ഓക്കേ